ആത്മഹത്യകൾക്ക് പല കാരണങ്ങൾ കാണും എന്നാല് കർഷക ആത്മഹത്യയെന്ന് പറയുന്നത് ഏറ്റവും കൂടുതൽ നമ്മൾ മുൻകരുതലുകൾ നൽകേണ്ട അല്ലെങ്കില് പ്രാധാന്യം നൽകേണ്ട ഒന്നാണ് കർഷക ആത്മഹത്യയെന്ന് പറയുന്നത് താൻ കർഷകനായതുകൊണ്ട് തന്നെ ആത്മഹത്യ ചെയ്യേണ്ടിവരുന്ന ഒരു സംഭവമെന്ന് പറയുന്നത് വളരെ മറ്റുള്ളവർക്ക് ബുദ്ധിമുട്ടുകളുണ്ടാക്കുന്നതാണ് അതിനും തന്നെ രണ്ട് കാരണങ്ങൾ കാണാം ഒന്ന് തങ്ങളുടെ കാർഷിക ഉൽപ്പന്നങ്ങൾക്ക് മതിയായ അംഗീകാരമോ വിലകളോ കിട്ടാത്തതാകാം രണ്ട് തൻ്റെ കാർഷികവിളകൾ നശിപ്പിക്കപ്പെടുന്നത് മൂലമുണ്ടായ ബുദ്ധിമുട്ടുകളാകാം അല്ലെങ്കിൽ കടക്കെണികളാകാം ഇങ്ങനെയൊക്കെയാണ് അതിന് അതിന് ഏറ്റവും ചെയ്യാനുള്ളത് സർക്കാർ തന്നെ ഇടപെട്ട് കർഷകരെ കയ്യിലെടുക്കേണ്ടതാണ് അവർക്ക് വേണ്ട സഹായങ്ങളും സബ്സിഡികളും ആനുകൂല്യങ്ങളും അതും ഏറ്റവും ഉപരിയായിട്ട് രക്ഷയും സ്വയരക്ഷയും തൻ്റെ കാർഷികവിളകൾ സംരക്ഷിക്കാനുള്ള എല്ലാ സജ്ജീകരണങ്ങളും ചെയ്തുകൊടുക്കേണ്ടതാണ് വയനാട്ടിലെ കാർഷികവിളകൾ നശിപ്പിക്കപ്പെടുന്നത് മൂലമുണ്ടായ ബുദ്ധിമുട്ടുകളും ആത്മഹഹൃകളെക്കുറിച്ചൊക്കെ നമ്മളെപ്പോഴും വായിച്ച് കേൾക്കുന്നതാണ് അല്ലെങ്കിൽ നമുക്ക് അറിവുള്ളതാണ് അതുപോലെ കാർഷികോൽപ്പന്നങ്ങൾക്ക് മതിയായ വില ഇടുന്നില്ലെന്നുള്ളത് ഒരു കർഷകനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും നൈരാശികരമായ സംഭവമാണ് കാർഷികവൃത്തി എന്ന് പറയുന്നത് ഏറ്റവും പ്രാധാന്യമര്ഹിക്കുന്നതും അംഗീകാരം നൽകേണ്ടതുമായ ഒരു ജോലിയാണെന്നുള്ള ഒരു ബോധ്യം തന്നെ നമ്മുടെ പുതുതലമുറയ്ക്ക് നൽകേണ്ടതാണ് എന്നാൽ മാത്രമേ കാർഷികവൃത്തിയിലേക്ക് പലരും കടന്നുവരികയുള്ളൂ പ്രത്യേകിച്ച് യുവതലമുറ നമ്മുടെ കൃഷിയിടങ്ങളെല്ലാം തരിശുഭൂമികളായിട്ട് കിടക്കുന്ന കാഴ്ചകള് ഇന്ന് വളരെയേറെയാണ് വിവിധ കർഷക കൂട്ടായ്മകളോ മറ്റ് പഞ്ചായത്ത് തലത്തിലുള്ള കൂട്ടായ്മകളോ ഒക്കെ ഈ പ്രദേശങ്ങള് ഏറ്റെടുത്ത് അത് കൃഷിക്ക് അനുയോജ്യമായ രീതിയില് ഉപയോഗപ്രദമാക്കിയാല് കാർഷികവൃത്തിയില് കൂടുതൽ അഭിവൃദ്ധിയുണ്ടാകാന് സാധ്യമാകും അതുവഴി നമ്മുടെ സാമ്പത്തിക മേഖലയും ഉയരുമെന്ന് തന്നെയാണ് അഭിപ്രായം